ഇപ്പം നമ്മുടെ ജില്ലയില് പ്രധാന ഉല്ലാസ പ്രവർത്തനങ്ങള് പിന്നെ വിനോദ പരിപാടികൾ ഒരുപാട് ഉള്ളൊരു ജില്ലയാണ് നമ്മുടെ ജില്ല ഇപ്പം കായിക പരമായിട്ടാണെങ്കിലും അല്ലങ്കില് പാർക്കുകള് അങ്ങനേള്ള ഒരുപാട് ഉണ്ട് പിന്നെ നമുക്ക് തിയേറ്ററുകള് തന്നെ ഒരുപാട് ഉണ്ട് നമുക്കവിടെ പോയിട്ടുണ്ടെങ്കിൽ തിയേറ്ററുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്ന് വച്ചാ സാംസ്കാരിക പരിപാടികളൊണ്ട് പിന്നെ തിയേറ്ററിൻ്റെ കാര്യം തന്നെ പറയുവാണേൽ നമുക്ക് എവിടെ ടൗൺ ഉണ്ടോ അവിടേക്കെ നമുക്ക് തിയേറ്ററുണ്ട് അതുപോലെ മാളുകളില് നമുക്ക് ഒരുപാട് തിയേറ്ററുകൾ കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ പിന്നെ ആളുകളൊക്കെ ഒരുപാട് പിന്നെ സമയം ചിലവഴിക്കുന്നത് തിയേറ്ററുകളില് പിന്നെ കൂടുതലായിട്ടും ബീച്ചുകള് അതായത് നമ്മള് പകൽ സമയത്തൊന്നും അല്ലങ്കിലും വൈന്നേരം ഈവെനിംഗ് ഒരു അഞ്ചര ആറ് മണിക്ക് ശേഷം നമുക്ക് ബീച്ചിലാണ് കൂടുതൽ ആൾക്കാര് ചിലവഴിക്കുക ഇപ്പം നമുക്ക് സൊറ പറയാനും പിന്നെ അങ്ങനുള്ള കാര്യങ്ങളിലും നമുക്ക് അതായത് നമുക്ക് ആസ്വദിക്കാനും കാറ്റ് കിട്ടാനും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വേണങ്കി പറയാം ഭയങ്കര ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം ഈവെനിംഗ് ടൈമിലക്കെ നമ്മള് കടൽ വക്കത്തക്കെ പോയിരുന്നിട്ടുണ്ടേ ൽ നമുക്ക് നല്ലൊരു കാറ്റും നല്ലൊരു കുളിർമ്മയും കിട്ടും പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്കിപ്പോൾ പറയുവാണെങ്കില് ഒരുപാട് പാർക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെവിടേക്കെ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കണം കയറണമെങ്കില് പിന്നെ നമുക്ക് ജിംനാസ്റ്റിക് സെന്ററുണ്ട് കടംബോയില് അമ്യൂസ്മെന്റ് പാർക്കുണ്ട് ജുറാസിക് പാർക്കുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മടെ ജില്ലയില്